എനിക്ക് ഏറ്റവും വായിച്ചതില് അല്ലങ്കിൽ അറിയാവുന്നതില് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിയാണ് കവി കവിത എഴുത്തുകാരണനാണ് എം ടി വാസുദേവൻ നായര് പിന്നെ എനിക്ക് ഇഷ്ട്ടം ഉള്ളത് നമ്മുടെ കമല സുരയ്യ ആണ് കമല സുര സുരയ്യ എന്നുപറയുമ്പോൾ ഒരു സ്ത്രീത്വത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലൂടെ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും വളരെ ഒരു പരിമിതിയില്ലാതെ പച്ചയ്ക്ക് എല്ലാവരോടും തുറന്നുകാണിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭാഷയിൽ അവര് അവതരിപ്പിച്ചിട്ടുണ്ട് പല സ്ത്രീകഥാപാത്രങ്ങളെയും ചിലതൊക്കെ വായിക്കുമ്പോള് നമുക്ക് നമ്മുടെ ജീവിതാനുഭവുമായി വളരെ അ അടുത്തുനിൽക്കുന്ന ചില കഥാപാത്രങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ എം ടി വാസുദേവൻ നായരെ കുറിച്ച് പറയുമ്പോള് എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്നുപറഞ്ഞാല് യാത്രകളാണ് എന്നാൽ വിഹ വിവാഹത്തിന് മുമ്പുവരെയുള്ള യാത്രകള് ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് നാം ഭയങ്കര ആസ്വദിച്ചാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ വിവാഹത്തിന് ശേഷം എനിക്ക് യാത്ര ചെയ്യാനോ അതിനുള്ള അവസരമോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മള് യാത്രകളെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാകുമ്പോൾ ആ അത് ആ ഒരു നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളും എല്ലാം നമുക്ക് ഈ എം ടിയുടെ പല നോവലുകളും അല്ലങ്കില് എന്താ പുസ്തകങ്ങളും കവിത അതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു അനുഭവത്തിലേക്ക് എന്നെ വിളിചോതികൊണ്ടു പോവാറുണ്ട് അതുകൊണ്ടുതന്നെ ആ യാത്രാവിവരണങ്ങൾ എന്നുപറയുന്ന ആ ഒരു സ്ഥലവും അവിടുത്തെ ആൾക്കാരും അവിടുത്തെ സംസ്കാരവും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം എന്നത് പോലെ അല്ലങ്കില് ഒരു സിനിമ എന്നത് പോലെ അല്ലെങ്കിൽ ഒര് യാഥാർഥ്യം എന്നത് പോലെ നമ്മുടെ മനസ്സിലേക്ക് വളരെ വ്യക്തമായി കയറുന്നു അപ്പോൾ നമുക്ക് ശെരിക്കും ആ ഒരു ഒരു സ്ഥലത്ത് നമ്മൾ പോയി പോയിതിരിച്ചു വരുന്ന ഒരു ഫീല് നമുക്ക് ആ ഒരു ഇത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് അതുപോലെതന്നെ ഒപ്പി ചേർന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ എനിക്ക് അതൊരു വല്ലാത്ത അനുഭവമാണ് എന്നെ ഇപ്പംകൂടുതൽ യാത്രകളിലൂടെ കൊണ്ടുപോകുന്നത് എം ടിയാണ് പിന്നെ എന്താ കമല സുരയ്യയുടെയും എല്ലാ കവിതകളും ഒന്നിനൊന്ന് മെച്ചമാണ് അതു രണ്ടുപേരുമാണ് എനിക്ക് ഏറ്റവും കൂടുതല് എന്നെ ആകർഷിച്ചിട്ടുള്ള രണ്ട് കഥാകാരനും കഥാകാരിയും കൂടാതെ ബഷിറ് എല്ലാവരേയും ഇഷ്ടമാണ് ബഷിർ എന്നുപറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സംസാരഭാഷയിൽ തന്നെ ലോക്കൽ സംസാര ഭാഷയിൽ തന്നെ ആശയം പ്രകടമാക്കുന്ന ഒരു കഥാകാരനാണ് എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട്ടം നർമ്മ ബോധത്തോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്ന പാത്തുമ്മയുടെ ആട് അതിഗംഭിരമായി ഞാൻ വായിച്ചൊരു കാര്യമാണ് നമ്മളറിയാതെ ഉള്ളിൽനിന്ന് ബഷിറിൻ്റെ വീടും വീട്ടുകാരെയും അവിടുത്തെ കോഴികുഞ്ഞുങ്ങളെയും ആടിനെയും പട്ടിയെയും പൂച്ചയേയും എല്ലാവരെയും പരിചയപ്പെടുന്നൊരു ഒരു രീതിയിൽ ഉള്ള ഒരു കഥ അതൊക്കെ വളരെ ഭംഗിയായി വായിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്